ഒന്നാമതായിട്ട് പറയുക ആണെങ്കിൽ ഓണം ആണ് കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഉത്സവങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നത് ഓണം ആണ് അത്തപൂക്കളമിട്ടും സദ്യകൾ ഒരുക്കിയും നമ്മൾ ഓണം ആഘോഷിക്കുന്നു പിന്നെ വരുന്നത് ദീപാവലിയാണ് ദീപാവലിയിൽ നമ്മൾ ദീപങ്ങൾ കത്തിച്ചും വീടുകൾ ദീപങ്ങളാൽ അലങ്കരിച്ചും നമ്മൾ അത് ആഘോഷിച്ച് വരുന്നു പിന്നെ വരുന്നത് ക്രിസ്ത്മസ് ഈസ്റ്റർ ദിനങ്ങളാണ് അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്നവരുടെയാണ് ക്രിസ്ത്യൻ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈസ്റ്റർ ഉയർപ്പ് ദിനവുമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇതേപോല തന്നെ ഒത്തിരി അധികം ഉത്സവങ്ങളും ധാരാളം ഓണം ക്രിസ്തുമസ് ഈസ്റ്റർ ദീപാവലി വിഷു വിഷൂന് ഒക്കെ ഏറ്റവും കൂടുതൽ പറയുക ആണെങ്കിൽ പടക്കങ്ങൾ പൊട്ടിച്ചും സദ്യകൾ ഒരുക്കിയും കേരളീയർ അത് വളരെ അധികം ആഘോഷിച്ച് വരുന്നു ഇന്ത്യയിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഏറ്റോം കൂടുതൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഒന്നാണ് ഓണം